കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ ടാസ്കാണ് അതിന് സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ കൊടുത്ത് കൊണ്ടിരിക്കുന്ന സബ്സിഡി സബ്സിഡി സകലം കൂടെ കൂട്ടി കൊടുക്കുക ആ കർഷകരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലും ഏതാണെങ്കിലും കർഷകനെ സംരക്ഷിക്കുന്ന വളത്തിന് സബ്സിഡി കൊടുക്കുക അതുപോലെ തന്നെ വൃക്ഷത്തിന് സബ്സിഡി കൊടുക്കുക നല്ല ഇനം മുന്തിയ വിത്തുകൾ നൽകുക അതുപോലെ തന്നെ കാര്യക്ഷമത കാര്യപ്രാപ്തി ഉള്ള അതായത് അത്യുൽപ്പാദനം കൂടുതൽ വിളവ് കിട്ടുന്ന വിത്തുകൾ നൽകുക അതിന് കേടില്ലാതിരിക്കുക ഇങ്ങനെയുള്ള സംഭരംഭങ്ങളിലൂടെ കർഷകരെ കാർഷിക മേഖലയിൽ വീണ്ടും നമുക്ക് ഉണർത്തി എടുക്കാൻ പറ്റും കാർഷിക മേഖല ഉണരുന്നു ഉണർത്തുന്നതിനോടൊപ്പം തന്നെ പമ്പിങ് സബ്സിഡികൾ സമയാസമയങ്ങളിൽ പമ്പിങ് സബ്സിഡികൾ കൊടുക്കുക കർഷകനെ സംബന്ധിച്ചു കർഷകന് വിൽക്കുന്ന നെല്ലിൻ്റെ വില അത് എത്രയും പെട്ടെന്ന് അതായത് വിതരണം സംഭരണം നടന്നു ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് അതിൻ്റെ വില എത്രയാണോ അത് കർഷകൻ്റെ അക്കൗണ്ടുകളിലെത്താൻ ഉള്ള ഒരു സംവിധാനം ഇന്ന് ഈ മേഖലയ്ക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ കാർഷിക വായ്പ്പകൾ തുച്ഛമായ പിന്ന തുച്ഛമായ പലിശയ്ക്ക് കാർഷിക വായ്പ്പകൾ നൽകുന്നത് ഒരു ഗുണകരമായ ഒരു സംഭവമാണ് കൂടുതൽ കർഷകരെ ഈ മേഖലയിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കും കാർഷിക രംഗം ഒരു ഉണർവ് ഉണ്ടാകാനായിട്ട് അത് സഹായിക്കും അതുപോലെ തന്നെ ഇപ്പം ഇപ്പം പമ്പ് അങ്ങനെ ഉള്ള സാധനങ്ങൾ അതുപോലെ കൊയ്ത്തു യന്ത്രം കൊയ്ത്തിങ്ങ് മെഷിൻ വരുമ്പോഴുണ്ടാകുന്ന അമിതമായ വില അതിൻ്റെ കൂലി അതൊക്കെ കുറക്കണം അതൊക്കെ കുറച്ചു കർഷകനെ ഇതിൽ നിലനിർത്തുക കൂടുതൽ കർഷകരെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ മേഖലയിലേക്ക് സാധിക്കും കാർഷിക രംഗത്തിന് ഒരു ഉണർവ് നേടാനായിട്ടുള്ള ഇതാണ് പിന്നെ തരിശ്ശ് കിടക്കുന്ന ഭൂമികളെല്ലാം എല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോ കുറച്ചു കൂടെ കാര്യക്ഷമമായിട്ട് ആ ഭൂമി മുഴുവനും ഇതുപോലെ കാർഷിക നാണ്യ വിളകൾ ഇറക്കാൻ വേണ്ടി വ്യക്തികൾക്ക് സർക്കാർ ചിലവിൽ വിത്ത് വളം അതുപോലെ ഉള്ള ഇതെല്ലാം അഡ്വാൻസായി ഏതെങ്കിലും ജാമ്യ വ്യവസ്ഥയിൽ രൂപ നൽകുന്നതും ഒരു ഗുണകരമായ കാര്യമാണ് കാരണം എങ്കിൽ ഇങ്ങനെ കൃഷി ഇറക്കാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളു ആ ഒരു ക്യാപിറ്റൽ ഫണ്ട് വേണം ആ ഫണ്ട് സർക്കാർ തന്നെ കൊടുത്തു ഇങ്ങനെ ചെയ്താൽ കാർഷിക മേഖലയിൽ നല്ല ഉണർവുണ്ടാകും അതുപോലെ തന്നെ ഈ ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ഫണ്ട് കാർഷിക സർവ്വകലാശാല പഠിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ തെങ്ങുകളിൽ മണ്ഡരികൾ വരുന്നത് അത് തേങ്ങ വേണ്ടത്ര നിലവാരത്തിൽ ഇല്ലാത പോകുന്നതെന്ത് കൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കി നാളികേര കർഷകരെ സംരക്ഷിക്കുന്ന ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരണം ചെയ്യുക അതുപോലെ തന്നെ ആണ് മറ്റു ഇടവിളകൾ ഈറ്റ് വിളക്കിലുണ്ടാകുന്ന ഇടവിളകൾ മറ്റു പച്ചക്കറി കൃഷി അവരെ ഒക്കെ സംരക്ഷിക്കപ്പെടാനും അവർകൊക്കെ വേണ്ടി മറ്റു ചെയ്യാനുള്ള സബ്സിഡി സബ്സിഡിക്കാണ് പ്രാധാന്യം നൽകേണ്ടത് അതിനായി നല്ല സബ്സിഡികൾ നൽകിയും നല്ല വിത്തുകൾ പ്രത്യുൽപ്പാദന ശേഷി ഉള്ള നല്ല വിത്തുകൾ കർഷകർക്ക് കൊടുക്കുകയും ചെയ്താൽ കാർഷികരംഗം ഒരു ഉണർവോടു കൂടി ഒരു പുത്തൻ കാൽവയ്പ്പ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും